നാല് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അഞ്ച് ഏഴ് രണ്ടായിരം ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്